ഹലോ ഇത് ഗയിഡ് അല്ലായിരുന്നോ കേരളത്തിലെ

ആ ഞാങ്ങ് ഞാൻ കോയമ്പത്തൂര് നിന്ന് ആയിരുന്നു വിളിക്കുന്നത് ആ ഈ ഇവിടെ കേരളത്തിലെവിടേയാണ് നല്ല മീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് മീൽഫുഡ് ആ സീഫുഡ് സീഫുഡ് ഐറ്റംസ് ആ ആ ആ

ആ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ ആ ആ അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന പ്ലൈസാണ് ഞങ്ങൾക്ക് വേണ്ടത് ആ ആ ഞങ്ങള് കോ കോ ആ മ് ഞാൻ കോഴിക്കോടായിരുന്നു വന്നിറങ്ങുന്നത് കോഴിക്കോടാണു വേണ്ടത് പിന്നെ നിങ്ങളുടെ അടുത്ത് വല്ല ടാക്സി ഡ്രൈവർ അങ്ങനെ വല്ല ആൾക്കാരുമുണ്ടാകുവോ ആ ഓക്കേ ഓക്കേ ഇത് ഇത് ഒരാഴ്ചത്തേക്കായിരിക്കും ഒരു നാലുപേരുണ്ടാവും ഞങ്ങള് ആ ഓക്കേ കോഴിക്കോടാണ് വന്നിറങ്ങുന്നത് കോഴിക്കോടാണു വന്നിറങ്ങുന്നത് വന്നിട്ട് നിങ്ങള് നോക്കിയിട്ട് എവിടെയാണന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് തന്നെ കൊണ്ടുവന്ന് സ്ഥലങ്ങളേതേലും നല്ലത് കൊണ്ടുപോയാൽ മതി മ് ഞങ്ങ ഞങ്ങള് നാ ആ ആ ആ ഓക്കേ അതൊന്നും സീനില്ല

നിങ്ങള് ആ ഓക്കേ ഓക്കേ ആ ഞാൻ വരുന്നേൻ്റെ തലേദിവസം ഞാൻ വിളിച് എല്ലാം സെറ്റാക്കിയിട്ടു പറഞ്ഞുതരാം രണ്ടുദിവസം മുന്നെയായിട്ട് ആ ഓക്കേ ഇത് ഇതിലോട്ട് നിങ്ങള് സെൻഡയ്തു തന്നാൽ മതി മെനു ഇത് ആ ആ ഓക്കേ ആ ഓക്കേ താങ്ക്യൂ